നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം കുറവ് അങ്ങനൊന്നും തോന്നുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ നഗരങ്ങളിൽ സ്കൂളുകൾ ഉണ്ട് അങ്കനവാടികളുണ്ട് ഹെൽത്ത് സെൻ്ററുകളുണ്ട് കിൻഡർ ഗാർഡൻസ് ഉണ്ട് അങ്ങനെ എൽ കെ ജി യു കെ ജി മറ്റ് എൽ പി യു പി ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഗ്രാമീണ മേഖലകളിൽ വന്ന് തുടങ്ങി അപ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഏകദേശപരമായ വിദ്യാഭ്യാസമാണ് നൽകുന്നത് പക്ഷേ ഗ്ര നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ ഹെൽത്തി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏഴ് വരെ സ്കൂളിൽ ഏഴ് വരെ പഠിച്ചതിന് ശേഷം പിന്നെ നഗരങ്ങളിലുള്ള സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അതല്ലാതെ ബേസിക്ക് ആയ അതായത് എൽ കെ ജി മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകൾ അതൊക്കെ സാധാരണ നമ്മുടെ നഗരങ്ങളിലെ സ്കൂളുകളിൽ പോകാമെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെൻ്റികശുള്ള പി ജി ഡിഗ്രി പി ജി അതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നിലവിൽ ഗ്രാമങ്ങളിൽ നഗരങ്ങൾക്കുള്ള വ്യത്യാസങ്ങളാണ് ഉള്ളത് ഏഴ് വരെയുള്ളൂ നമ്മുടെ നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ ഉള്ളത് പക്ഷേ അതിന് ശേഷമുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ നഗരങ്ങളിലേക്ക് പോകുന്നു അതുേപോലെ ഡിഗ്രി പി ജി എടുക്കാൻ ഇപ്പം എന്തായാലും നമ്മൾ നഗരപ്രദേശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യകതയാണ് ഉള്ളത് ഈ ഗ്രാമം നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെ വേറെ വേർത്തിരിച്ച് കാണുന്നത് ഹെൽത്ത് പരമായ കാര്യങ്ങളാണ് അതായത് ഹോസ്പിറ്റാലിറ്റി അതായത് ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ നിലവിൽ കണ്ടുവരുന്നത് ഇപ്പം നമ്മളെ പിന്നെ ഗ്രാമങ്ങളിൽ വരുന്നത് വെറും ഹെൽത്ത് സെൻ്ററ് അല്ലെങ്കിൽ ചെറിയ ഇൻചക്ഷൻ കൊടുക്കാൻ മാത്രം ചെറിയൊരു സെറ്റപ്പ് മാത്രമുള്ളൂ ഗ്രാമങ്ങളിലുള്ളത് പക്ഷേ നഗരങ്ങളിലാണ് വലിയ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ പെട്ടെന്നൊരു സർജറികൾ എന്നുള്ള ആവശ്യകത നിറവേറ്റാനുള്ള ആവശ്യകത അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉള്ളതൊക്കെ നമ്മുടെ നഗരങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് അപ്പോൾ പിന്നെ ഗ്രാമങ്ങളിൽ എന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കല് അല്ലെങ്കിൽ ടവറ് റേഞ്ച് ഇഷ്യൂ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നഗരങ്ങളിൽ അല്ല വില്ലേജുകൾ ഗ്രാമങ്ങളിൽ ചിലപ്പോൾ ഫേസ് ചെയ്തു എന്ന് വരാം നേരിട്ടെന്ന് വരാം അങ്ങനത്തെ ബുദ്ധിമുട്ട് പക്ഷേ നഗരങ്ങളിൽ അങ്ങനെ ഇതുവരെ അവർക്ക് ഉണ്ടാകില്ല കാരണം നഗരങ്ങളിൽ ഈ ടവറുകൾ റേഞ്ച് പരമായ കാര്യങ്ങൾ ഏ മറ്റ് എല്ലാ ഫെസിലിറ്റീസും നമ്മളുടെ നഗരങ്ങളിൽ ലഭ്യമാണ് പക്ഷേ ഗ്രാമങ്ങളിൽ അത്പരമായ കാര്യങ്ങളുടെ വളരെ ഒരു ഒരു അഭാവം അല്ലെങ്കിൽ കുറവ് നന്നായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിൽ ചില കാര്യങ്ങളിൽ മാത്രം ഒരു വ്യത്യസ്ത അല്ലെങ്കിൽ ഒരു വേർതിരിവ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പിന്നെ ജനങ്ങൾക്ക് സർക്കാർ മുഖേന നൽകുന്ന ബേസിക് ആവശ്യങ്ങളൊക്കെ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ഒരുപോലെയാണ് നൽകുന്നത് പക്ഷേ ഈ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഹയർ സെക്കൻണ്ടറി അങ്ങനെ ഹയർ എജ്യൂക്കേഷന കാര്യങ്ങൾ കൂടി നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരണം അപ്പോൾ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി മറ്റു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യു പരമായുള്ള ബേസിക് നീഡ്സ് അതൊക്കെ നമ്മൾ ഗ്രാമങ്ങളിൽ തീർച്ചയായി എത്തേണ്ടതുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളെ വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായി പരിഗണിക്കുന്ന ചില കാര്യങ്ങൾ